ഹലോ ആ ബേക്കറിയല്ലേ അതെ ആ ഇവനെ നമ്മൾക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്വീറ്റ്സ് വേണമായിരുന്നു ലഡു എങ്ങനെ റേറ്റ് എങ്ങനെ വരുന്നത് ലഡുവാണ് വേണ്ടത് അപ്പോൾ ഏകദേശം ഒരു നാനൂറ് നാനൂറ്റി അൻപത് പേർക്കുള്ളത് വേണം ആ മാക്സിമം ഒരു നാലു ദിവസം കഴിഞ്ഞിട്ട് ആ എത്ര എങ്ങനെയാണ് ഹോമിലേക്ക് നിങ്ങൾ തന്നെ പ്രിപ്പറേഷൻ ചെയ്യുന്നതാണോ അല്ലെങ്കിൽ പുറത്ത് നിന്ന് കൊണ്ട് വരുന്നതാണോ നിങ്ങൾ

ആ അങ്ങനെ അങ്ങനെ കുറച്ച് നല്ലത് എങ്ങനെയാണ് റേറ്റ് വരുന്നത് ഏകദേശം ഡിസ്കൗണ്ട് വരുന്നുണ്ടാകൽ

ഈ ഇതിൽ വേറെ വേറെ ആ ആ അതെയോ വെറൈറ്റി ലഡു ഉണ്ടാവുമോ ഇപ്പോൾ ലഡു കുറേ കുറേ ടൈപ്പ് ഇല്ലേ നിങ്ങളുടെ ആണല്ലേ എല്ലാം ഈ എല്ലാം എല്ലാ വെറൈറ്റിയും ഉണ്ടല്ലേ അപ്പോൾ ഇവിടെ റേറ്റ് ഡിഫറൻസ് ഉണ്ടാവുമോ കുറയും അല്ലേ ഓ ഇങ്ങനെ അല്ലേ ആ നാനൂറ് മുന്നൂറ്റി അമ്പതിനുള്ളിൽ മാക്സിമം കുറച്ച് തരാൻ പറ്റുമോ നിങ്ങൾക്ക് ഇതിൽ ഹോം ഡെലിവറി ഉണ്ടാവൂലേ അതെയോ അത് ഡെലിവറി ഉണ്ടാവൂലേ ഹോം ഡെലിവറി എല്ലാം അതിന് ചാർജ് കുറയുന്നുണ്ടോ

ആ കിട്ടുമല്ലേ ആക്കിയാൽ മതി ഞാൻ വിളിച്ച് പറയാം ഓക്കെ ഓക്കെ വിളിക്കാം ആ